ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് പിന്നെ കുറച്ച് കൂടി പുറകിലേക്ക് പോകുകയാണെങ്കിൽ ഫേസ്ബുക്ക് ട്വിറ്റർ എന്നിവ ഒക്കെയാണ് ഇതിനൊക്കെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒരുപോലെ തന്നെ ഉണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ന്യൂസുകളും പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ആകാൻ കഴി സാധിക്കുന്നതാണ് ദോഷം എന്ന് വെച്ചാൽ ഈ തെറ്റായ വാർത്തകളും തെറ്റായ വാർത്തകളും അതേ രീതിയിൽ തന്നെ എല്ലാവരിലേക്കും എത്തുന്നുണ്ട് പിന്നെ എല്ലാവരും ഇതിലേക്ക് ഒരുപാട് അഡിക്ഷൻ ആയതു അഡിക്ഷൻ എന്നുള്ളതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യ കാര്യം തന്നെയാണ്